ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല്